നേരിട്ട് തീയില് പാചകം ചെയ്യുകാന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കനെക്കയാണ് നമ്മള് സാധാരണയായിട്ട് നേരിട്ടതായിട്ട് നമ്മള് തീയില് സെറ്റ് ചെയ്യാറ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ എല്ലാവരും കൂടെ ഒരു കോഴിനെ മേടിക്കും എന്നിട്ട് അതിൻ്റെ പപ്പും പൂടയെല്ലാം വലിച്ച് പറിച്ച് കളഞ്ഞ് അതിന് കുറച്ച് അത്യാവശ്യം ചെറിയ ചെറിയ കഷ ചെറിയ പീസാക്കും അല്ലെങ്കിൽ വലിയ പീസാക്കും പിന്നതില് കത്തിയും കൊണ്ട് വരഞ്ഞിട്ട് അതില് മുളക് മല്ലിപ്പൊടി ഉപ്പ് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കുറച്ച് നേരം അതെല്ലാം സെറ്റ് ചെയ്യാൻ വക്കും അതുകഴിഞ്ഞിട്ട് നമ്മള് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നിട്ട് അതി രണ്ട് കട്ടയൊക്കേ വച്ച് അതിൻ്റെ മുകളിലൊരു കം കമ്പി പോൽത്തൊരു സംഭവം അല്ലെങ്കിൽ ഒരു നീളത്തിലുള്ള കമ്പീൻ്റെ നെറ്റ് വച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ സാധനം വയ്ക്കുക അപ്പോൾ തീ അടിയിൽ നിന്ന് ഇതിലേക്ക് നേരിട്ടിങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒന്ന് ചൂടായി കമ്പി ചൂടായിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് അതിന് മുകളിലേക്ക് ഇങ്ങനെ വക്കും അപ്പോൾ അത്യാവശ്യം നല്ല ഒരു റെഡ് അല്ലെങ്കിൽ കുറച്ച് കടും ചുവപ്പ് നിറത്തിലായിരിക്കും നമ്മുടെ മീറ്റ് ഉണ്ടാവുക അതുകഴിഞ്ഞിട്ട് അത് കോ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാം വ്യത്യസ്ത പരമായിട്ട് എല്ലാം കറക്റ്റ് പാകത്തിന് ആവണ വരെ അതില് ചൂടാക്കും ഇത് മറ്റുള്ള പുതുമ ഈ സംഭവം നമ്മളെന്ന് പറഞ്ഞാൽ ഗ്യാസില് വയ്ക്കുക അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ വക്കണ വച്ചാൽ ഇതി കുറച്ചും കൂടെ ടേസ്റ്റുവായിരിക്കും എന്താന്ന് വച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ന്ന് നേരിട്ട് തീയായിട്ട് നമ്മുടെ ഭക്ഷണത്തെ ഇതാക്കില്ല പക്ഷെ ഇത് നമ്മള് നേരിട്ട് തീയില് പാകം ചെയ്യുമ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും ആ എരിവും പുളിയൊക്കെ കറക്റ്റായിട്ട് അതില് സെറ്റാകും പിന്നതില് വെള്ളം അല്ലെങ്കിൽ എണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ടാക്കും പിന്നെ നമുക്ക് പുറത്തെവിടെയും പോയി ചെയ്യണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ലത് പൊ പുറത്തൊന്നും ഗ്യാസും കുറ്റി കൊണ്ട് പോയിട്ട് പെട്ടന്ന് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആദ്യം കുറച്ച് തീയൊന്ന് ഇട്ട് ഇതാക്കാനാണ് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെട്ടന്ന് ചെയ്യാനും പറ്റും നല്ല ടേസ്റ്റും ഉള്ളതാണ്